ഇപ്പം നമ്മുടെ എ എല്ലാവരുടെയും അതായത് പലർക്കും പല മതങ്ങളും കാര്യങ്ങളൊക്കെയാണ് വിശ്വാസം കാര്യങ്ങളൊക്കെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഓരോ മതത്തിലും നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നുവെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എല്ലാ മതക്കാരെയും സ്നേഹിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം പഠിക്കേണ്ടതെന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഓരോ നിയമങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നവയാണ് പിന്നെ അവ അവരുടെ ധർമ്മവും കാര്യങ്ങളൊക്കെയുണ്ടാകും പിന്നെ സത്യം പറയാൻ വേണ്ടീയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുക ഇങ്ങനത്തെ പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവർ വേണമെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നയായിരിക്കും പിന്നെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് നമ്മുടെ രീതിയിലുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ചെയ്യാമെന്ന് വേണമെങ്കിൽ പറയാം പിന്നേ നമ്മുടെ ഹിന്ദു മതത്തിലാണെങ്കിൽ യോഗയും കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യിക്കുന്നതാണ് ഓരോ മതത്തിലും പല രീതിയിലുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും ചെയ്യിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം